ഒരു പത്തുവർഷം മുന്നേയുള്ള കേരളമല്ല ഇപ്പോഴത്തെ കാരണം വികസനങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ കൂടുതലായിട്ട് നടന്നു വരുന്നേ ഉള്ളൂ പക്ഷേ എല്ലാ ജില്ലകളിലും ഇല്ല ഓരോ ജില്ലകളിൽ മാത്രം നമുക്കിങ്ങനെ എണ്ണി എടുക്കാൻ പറ്റുന്ന ജില്ലകൾ മാത്രം ഇപ്പോൾ പാലക്കാട് ജില്ല ആയിക്കോട്ടെ ഒരു വികസനവും അവർ കൊണ്ടുവരുന്നില്ല സാമ്പത്തിക വികസനം ഒന്നും നടക്കുന്നില്ല സാമ്പത്തിക വികസനം ഉണ്ടെങ്കിൽ തന്നെ അവരതിന്റെ അഴിമതി കാണിക്കുന്നു അതാണ് ഇവരിലെ ഏറ്റവും വരുന്ന പ്രശ്നം അതു മാറ്റിയാൽ തന്നെ നമ്മുടെ കേരളം നന്നാകും ആദ്യം ഈ സർക്കാരിൽ നിന്നുള്ളവരെ നല്ല രീതിയിൽ ഈ ചെറുപ്പക്കാരെ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഇപ്പോഴുഉള്ള ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റിയിട്ട് എജ്യുക്കേറ്റഡ് വെൽ എജ്യുക്കേറ്റഡ് ആൻഡ് ഏജ് കുറഞ്ഞിട്ടുള്ള ആൾക്കാരെ സർക്കാർ സർക്കാരിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചാൽ അവർ നന്നായി നോക്കും കാരണം അവർക്കത് ചെയ്യാനുള്ള കഴിവുണ്ട്